ഹലോ അക്ഷയ ആണോ ആണോ ഞാൻ എനിക്ക് ഒരു ആധാറ് എൻ്റെ ആധാർ കാർഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് തെറ്റായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എനിക്ക് അതൊന്നു മാറ്റണമായിരുന്നു അപ്പോൾ അതിന് അതൊന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നു തിരുത്തി വേറെ പുതിയ ആധാർ കാർഡ് എനിക്ക് എടുക്കണമായിരുന്നു അത് പെട്ടെന്ന് അത് എത്രനാൾ പിടിക്കും ഒരു ആഴ്ച്ച കഴിയോ ഒരു ആഴ്ച്ചയോ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് ഞാൻ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് അതിൻ്റെ സർട്ടിഫിക്കറ്റും എന്തൊക്കെ വേണം അന്നേരം സർട്ടിഫിക്കറ്റും ആ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡോ റേഷൻ കാർഡും ആ ഞാൻ കൊണ്ടുവരാം ശരി ശരി ഓ